വിവാഹങ്ങള് നമ്മള് ആസ്വദിക്കുക എന്ന് പറയുമ്പോള് വിവാഹങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ പണ്ടത്തെ രീതിയിൽ നിന്ന് ഈയൊരു രീതിയിലോട്ട് വരുന്ന സമയത്ത് വിവാഹ ആചാരങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് കാരണം കുറച്ചു മുൻപ് പണ്ടുകാലഘട്ടങ്ങളിൽ ഒക്കെ വിവാഹം എന്ന് പറയുമ്പോൾ അധികം പരിപാടികൾ ഉണ്ടായിരുന്നില്ല അല്ലെങ്കില് മറ്റു കലാപരമായ പരിപാടികളും മറ്റു കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല വിവാഹം കഴിക്കുക പിന്നീട് ബാക്കിയുള്ള ചടങ്ങുകളും മറ്റ് കാര്യങ്ങളും ആണ് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹ വിവാഹം ഇന്നൊരു ആചാരം വിവാഹം എന്ന ഒരു മംഗളപരമായിട്ടുള്ള ആ ഒരു പരിപാടിയില് ഒരുപാട് കലാപരം കലാപരമായിട്ടുള്ള ഒരുപാട് കഴിവുകള് ഉള്ളവരാണെങ്കില് അവര് ആ കഴിവ് തെളിയിക്കുന്ന ഒരു അവസരമായി അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ആയിട്ട് അതിനെ വിനിയോഗിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് സംഗീതം നൃത്തം അതുപോലെ തന്നെ അവര് ഏതു മേഖലയിലാണോ കഴിവുള്ളത് അതിനനുസരിച്ച് ആ വധു ആയി വധു ആയിക്കോട്ടെ വരനായിക്കോട്ടേ രണ്ടുപേരും ആ ഒരു വിവാഹമണ്ഡപത്തില് ഒരുപാട് ആസ്വദിച്ചും സന്തോഷി സന്തോഷിച്ചും ആണ് പരിപാടിയില് പങ്കെടുക്കുന്നത് അങ്ങനെ ഒരുപാട് ഇപ്പോള് ഈ ഒരു കാലഘട്ടത്തില് പാട്ടുകള് ഒരുപാട് ഗാനങ്ങള് സംഗീത നൃത്തത്തിനു അനുയോജ്യമായ ഒരുപാട് പാട്ടുകള് ഉണ്ട് മാപ്പിളപ്പാട്ട് ആയിക്കോട്ടെ സാധാരണ പാട്ടുകള് ആയിക്കോട്ടെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് പാട്ടുകള് ഉണ്ട്